ഹലോ ബാബു ചേട്ടാ സുഖമായിട്ടിരിക്കുന്നു എങ്ങനെയുണ്ട് മഴയൊക്കെ ആ ആ ഇവിടെയൊക്കെ ഭയങ്കര മഴയാ ആ അത് ഇങ്ങനെ നോക്കുന്നുണ്ട് ആൾക്കാരെ ആരെയൊന്നും കിട്ടിയില്ല നമുക്ക് പതുക്കെ ഒന്ന് ചെയ്യാം എന്ന് വിചാരിക്കുന്നത് ഓ എല്ലാം കൂടെ ആയപ്പോൾ ഒരു ജോലി തിരക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ആ പ്രയാസം ആന്നെ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട്രോള് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല ആ അപ്പം ഇങ്ങനെ അങ്ങ് ചിന്തിക്കുകയായിരുന്നെ എവിടെയെങ്കിലും ഒന്ന് ധ്യാനമോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പോയാലോ എന്ന് എനിക്കൊന്ന് ബാബു ചേട്ടനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്നാൽ വല്ലയിടത്തും വല്ല ധ്യാനത്തിന് വല്ലതും ഒന്ന് പോയാലോ നമുക്ക് ഈ പെരുന്നാൾ അവധി ദിവസം അവധിയുടെ സമയത്ത് വല്ലതും ഒന്ന് ചെയ്താലോ അഞ്ചാറ് ദിസത്തേക്ക് നമുക്കേ ഇവിടെ എവിടാ നമുക്ക് പോകാൻ ബാബു ചേട്ടന് വല്ല നല്ല സ്ഥലവും അറിയാവോ നല്ല ആ ഞാൻ അതിനെക്കുറിച്ച് കേട്ടായിരുന്നു ആ ഇങ്ങനെ ആ ബൈബിൾ ഒക്കെ നന്നായിട്ട് പഠിപ്പിക്കുന്ന സ്ഥലം അല്ലേ

ഓക്കെ ഓക്കെ ആ ഡാനിയൽ അച്ചൻ്റെ ആ അച്ഛൻ്റെ വീഡിയോയൊക്കെ ആ ആ അച്ഛൻ്റെ വീഡിയോയൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടായിരുന്നെ അപ്പം എനിക്ക് തോന്നിയിരുന്നു രണ്ടുദിവസം തോന്നിയായിരുന്നു അങ്ങോട്ടേക്ക് പോയാൽ കൊള്ളാം അപ്പോൾ ബാബു ചേട്ടനും ഉണ്ടാവോ നമുക്ക് എന്നാൽ ഒരുമിച്ച് അങ്ങ് പോയാലോ അവിടെ

ആ അല്ല അത് അത് പല സ്ഥലത്തും പല രീതിയിൽ അല്ലേ ഓക്കേ ഞാ

ആ കൺവെൻഷന് പോകുന്നുണ്ടല്ലേ ആ അവർക്ക് അവിടെ താമസിച്ചുള്ള ധ്യാനം ഉണ്ടോ അവിടെ അവിടെ പോയി നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ഒക്കെ കിട്ടോ

ആ ദിവസവും പോയി വന്നിട്ടാണോ ആ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ എങ്ങാണ്ട് ആണെന്ന് തോന്നുന്നു അല്ലേ ആ ഓക്കെ ആ അങ്ങനെ വല്ല താമസിച്ച് ഒന്ന് ആ കുറച്ച് ദിവസം നമുക്കൊന്ന് താമസിച്ചൊന്ന് നിൽക്കുകയാണെങ്കിൽ ആ ഓക്കേ ആ നമു ഓക്കേ അതാകുമ്പോൾ നമ്മുടെ ഇവിടത്തെ സാഹചര്യം ഈ ഫോണും ഈ ഉപയോഗ ഈ സോഷ്യൽ മീഡിയായൊക്കെ ഒത്തിരി ആയി കഴിഞ്ഞപ്പഴെ പിന്നെ ആൾക്കാർ ഈ ജോലിയുടെ തിരക്കും എല്ലാം ആയപ്പോൾ ഇവിടുന്ന് എല്ലാം മാറിനി മാറിനിൽക്കാം എന്ന് വിചാരിച്ചായിരുന്നെ ഇപ്പം അങ്ങനെയാവുമ്പഴെ നമുക്കിതിപ്പം ഇവിടെ അടുത്ത് എല്ലാദിവസവും പോയി വരുകയൊക്കെയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ബഹളത്തിനൊക്കെ ഇടയിൽ പെട്ടുപോവേ ഒന്ന് ഇവിടുന്ന് ഒക്കെയൊന്ന് മാറിനിൽക്കാം എന്ന് ഉണ്ടെ ആ ആ നമ്മുടെ സാഹചര്യത്തിന് അതാകുമ്പോൾ ചേട്ടന് ഫ്രീ ആകുമ്പോൾ നമുക്ക് ആ കോട്ടയം പോകുന്നതായിരിക്കും നല്ലത് അല്ലേ ആ

ബാബു ചേട്ടന് ആ അവിടെ ആരെയെങ്കിലും പരിചയം ഉണ്ടോ നമുക്കൊന്ന് രജിസ്റ്റർ ചെയ്യാൻ ധ്യാനം രജിസ്റ്റർ ചെയ്യാം ആ ധ്യാനം രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നവർ വല്ലതും ഉണ്ടോ നമുക്ക് കോൺടാക്ട് അങ്ങനെയാണെങ്കിൽ അവരുടെ ഡേറ്റ് ഒക്കെ ഒന്ന് ചോദിച്ചു വയ്ക്കോ ആ ആ ഓക്കെ കോട്ടയത്ത് പോകാം അല്ലേ കോട്ടയം പോകാൻ നമ്മൾ ഇരിങ്ങാലക്കുട ചാലക്കുടി ഞാൻ ഇതുവരെ പോയിട്ടില്ല ഇങ്ങനെ കേട്ടിട്ടുണ്ട് കോട്ടയം ആ ട്രെയിനെ ഒക്കെ പോകാൻ പറ്റുവായിരിക്കും അല്ലേ നമുക്ക് ഇവിടെന്ന് അപ്പം ആ ഇവിടുന്ന് ട്രെയിൻനേ കയറിയാൽ നമുക്ക് ആ അവിടെ അടുത്തെങ്ങാണ്ട് ചെന്ന് ഇറങ്ങാം ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് മ്മ് ഓക്കേ ആ ഓക്കെ നമുക്ക് എന്തായാലും ഇപ്പം ഒരു ഓണത്തിൻ്റെയൊക്കെ ഒരു അവധിയുടെ ദിവസങ്ങളിലേക്ക് നമുക്കൊന്ന് കൈകാര്യം ചെയ്താൽ ആ ദിവസത്തേക്ക് ഒന്ന് നോക്കാവോ ആ ഓക്കെ ഓക്കെ നമുക്ക് എന്നാൽ ആ ഡേറ്റിനങ്ങ് പോകാം ഫിക്സ് ചെയ്യാം കേട്ടോ ഒന്ന് നോക്കി ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്തേക്കണേ ഞാൻ ആ പൈസ ഞാൻ ഗൂ ആ ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം ബാബു ചേട്ടനെ ആ ആ എന്നിട്ട് പറഞ്ഞാൽ മതി ഞാനത് ഗൂഗിൾ പേ ചെയ്തേക്കാം കേട്ടോ ഓക്കെ ഓക്കെ അപ്പം കാണാം ഒന്ന് ചെയ്തേ ചെയ്യാം നമുക്ക് ഒരുമിച്ച് പോകാം ഓക്കെ എന്നാൽ കാണാം